ആ വരുമായിരിക്കും എന്താ പേര് ഓ എവിടന്നാ വരുന്നത് ആണോ അപ്പം എവിടെയാ പഠിച്ചത് ഒക്കെ ഓ സ്കൂളിൽ ഒക്കെ നല്ല കുട്ടി ആയിരുന്നോ ഓ അപ്പം എങ്ങനെ ഉണ്ട് മാർക്ക് ഒക്കെ ഞങ്ങൾ അതീന്നെന്നെ തുടങ്ങാലൊ പത്തിൽ എങ്ങനെ ആയിരുന്നു ഓ വെരി ഗുഡ് പ്ലസ്ടു ആ ഓ ഓ ഓ കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആയിരുന്നോ എടുത്തത് അല്ലെങ്കിൽ ഓ അപ്പം അതുകൊണ്ട് ആണോ എഞ്ചിനീയറിംഗ് എടുക്കാൻ വന്നത് ഓ അപ്പം എങ്ങനെ ഉണ്ട് കമ്പ്യൂട്ടർ സയൻസില് മാർക്ക് ഒക്കെ ഓ അപ്പം ലാബ് ഒക്ക എങ്ങന ഉണ്ടായിരുന്നു ഈസി ആയിരിക്കും അല്ലെ ഓ അപ്പം പിന്നെ വലിയ ബുദ്ധിമുട്ട് ഒന്നും ആവില്ലല്ലൊ അവിടെ പഠിക്കാൻ വേണ്ടീട്ട്

ഓ നിങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെ ഭദ്രമായിരിക്കും അതിൽ ഒന്നും ഒര് പേടിയും വേണ്ട ഇവിടത്തെ ഫാക്കൽറ്റീസ് ആയാലും ഇവിടത്തെ സ്റ്റാഫുകൾ ആയാലും ഇവിടത്തെ എല്ലാ ഫെസിലിറ്റീസ് ആയാലും നിങ്ങളിടെ ഫ്യൂച്ചറിനെ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കും പ്രോബ്ലം വിചാരിക്കുകയേ വേണ്ട അപ്പം കമ്പ്യൂട്ടർ സയൻസെന്നെയാ എടുക്ക്ന്നേന്ന് ഉറപ്പിച്ചല്ലോ അല്ലെ ഓ അപ്പം ഇതിന് മുന്നെ ഏതെങ്കിലും എക്സ്ട്രാ കോഴ്സോ കാര്യങ്ങളോ ഒന്ന് ചെയ്തിട്ട് ഒന്നും ഇല്ലല്ലൊ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇത് ഓ ഓ ഹ്മ് എൻട്രൻസ് ഒന്നും ട്രൈ ചെയ്ത് ഇല്ലെ ഓ അത് കുറച്ചുംകൂടെ പഠിച്ച് ഉണ്ടായിരുന്നെങ്കിൽ കിട്ടി ഇരുന്നല്ലൊ

ഓ ഓ അപ്പം ഇവിടെയും വന്നിറ്റ് ഉഴപ്പനാണോ പ്ലാൻ

അത് വാങ്ങണം കാരണം ഇത് ഒര് മാനേജ്മെൻറ്റ് കോളേജ് ആവ്ന്ന സമയത്ത് നമ്മട മാർക്ക് എന്ന് പറയുമ്പം വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് നമുക്ക് അപ്പം നിങ്ങൾ എത്രയും പെട്ടന്ന് തന്നെ എങ്ങന നല്ലോണം പഠിച്ച് റാങ്ക് ഒക്ക വാങ്ങുന്നു അതിൽ ആണല്ലൊ നമ്മടെയും ഹാപ്പിനസിന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടീട്ട് ഇള്ള എല്ലാ വിധ ഹെൽപ്പ് നമ്മട ഭാഗത്തിന്ന് എന്തായാലും ഉണ്ടാവും നമ്മള എല്ലാ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കുമ്പം നന്നായിട്ടെന്നെ തോന്നത് പക്ഷെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് മാത്രം അത്ര ഒര് ഇത് തോന്നുന്നില്ല ടീച്ചേർസിനെ ഒക്കെ നന്നായി വെറുപ്പിച്ചിരുന്നോ ആണോ റെഡ് മാർക്ക് ഒന്നും ഇല്ല അപ്പം കുഴപ്പം ഒന്നും ഇല്ല

അപ്പം പിന്നെ അഡ്മിഷൻ എടുക്ക് ന്നേന് ഒര് കുഴപ്പം ഇല്ല ബാക്കി കാര്യങ്ങൾ ഒക്കെ നമ്മക്ക് പാരൻറ്റ്സ് ആയിട്ട് സംസാരിച്ച് റെഡി ആക്കാം ഓക്കെ ശരി